ഹലോ ആ അതേ അതേ ആ പറഞ്ഞോളൂ ബിജൂ എന്തായിരുന്നു ആ നോക്കാം നമ്മള്ക്കു നോക്കാം പേടിക്കേണ്ട ചെയ്യാം പിന്നതേ എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ടായിരം സ്ക്വേയർ ഫീറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ

ഉവ്വ് മ്മ് മ്മ് ഉവ്വ് മ്മ് മ്മ്

ആ ഉവ്വ് ഓ ഉവ്വ് ഉവ്വ് ആ അ ആ എല്ലാം കൺസീല്ഡല്ലേ ഇപ്പോള് മേടിച്ചത് ഉവ്വ് ആ അ ആ ആ സ്റ്റോർ റൂമിലൊക്കെ സാധാ വയറിങ് പോരേ നമ്മളേ മറ്റേ ഈ വാഷ് വാഷ് ബേസിൻ വയ്ക്കാനും അല്ലേ വാഷ് ബേസിൻ വയ്ക്കാനൊക്കെയൊക്കെയാ അല്ല അല്ല വാഷിംഗ് മെഷിന് വാഷിംഗ് മെഷിനൊക്കെ വയ്ക്കാനൊക്കെയായിട്ടുള്ള വയറിങ് അല്ലെങ്കില് ആണോ ആ വർക്കേരിയയില് ആ അതാണു ഞാന് പറഞ്ഞത് സാധാരണ വാഷിംഗ് മെഷിനൊക്കെ വർക്കേരിയേലാണല്ലോ വയ്ക്കാറ് ആ അ ആ അപ്പോള് എങ്ങനെയാണ് ബിജു ചേട്ടനെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മ്മ് മ്മ് മ്മ്

ആ അതല്ലാതെ അവിടെ പവർ പവർ സ്വിച്ച് പ്ലഗ് തന്നെ വയ്ക്കണം മ്മ് ഫാനുണ്ട് അല്ലേ മ്മ് എല്ലാ എല്ലാവരുടെയും റൂമിലും ഫാൻ വേണം ഹാളില് വേണം ആ അ അ ആ ഉവ്വ് ഹാളില് വേണം നാല് ബെഡ്റൂമില് വേണം അല്ലേ പിന്നേ ലൈറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റെത്രയെണ്ണം ഉവ്വാ മ്മ് എങ്ങനെയാണ് ലൈറ്റെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റൊക്കെ എങ്ങനെയാണ് ഇപ്പോഴെല്ലാം ഉദ്ദേശിക്കുന്നത് ഫാൻസി ലൈറ്റുകളല്ലേ മൊത്തം ആ ഹാളിലൊക്കെ നോക്കുമ്പോള് ഫാൻസി ലൈറ്റായിട്ടു തന്നെയാണ് ആ ഉവ്വാ മ്മ് മ്മ് മ്മ് മ്മ് ഉവ്വ് ആ എന്ജിനീയറിങ്ങിന്റെ എന്ജിനീയറുടെ പ്ലാനല്ലേ അത് അപ്പോഴൊക്കെ ശരി ഞാനേ ഞാനേ നാളെയെന്നാലങ്ങോട്ട് വരണേ വീട്ടിലേക്ക് നാളെ വീട്ടിലുണ്ടാവുമോ വീട്ടില് ആ വന്നോളാം ഓക്കെ നാളെ ഞാന് വന്നോളാമേ ഓക്കെ ആ ഓക്കേ